ഹലോ കൂത്തുപറമ്പ് ദന്താശുപത്രി ഇതാരാ സംസാരിക്കുന്നത് ആ സാമി തന്നെയാണ് സംസാരിക്കുന്നത് പറഞ്ഞോളൂ വേദന ആ നിങ്ങള് ചൂടുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഒന്നും കഴിച്ചില്ല മരുന്ന് ഇപ്പോൾ ഒരു തവണ അല്ലേ കഴിച്ചിട്ടുള്ളൂ ഒരു നേരത്തെ മരുന്ന് അല്ലേ കഴിച്ചത് ആ എന്നാൽ ഇനി ഒരു മൂന്നു മണി ആകുമ്പോൾ ഒന്നൂടെ കഴിച്ച് നോക്കൂ എന്നിട്ടും കുറവില്ലെങ്കിൽ ഇന്ന് തന്നെ വന്നോ ഞാൻ ഇവിടെ ഒരു അഞ്ച് മണി വരെ ഒക്കെ ഉണ്ടാകും അതെ അതെ

റൂട്ട് കനാൽ ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് രണ്ടു പല്ലല്ലേ കേടുവന്നിട്ടുള്ളത് അപ്പം അതില് വേദനയുള്ള പല്ല് നമുക്ക് ഇപ്പൊൾ ഒന്ന് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റില്ല ഇല്ല വേദന മാറിയാലും നമുക്ക് പെട്ടന്നൊന്നും റൂട്ട് കനാല് ചെയ്യാൻ പറ്റൂല്ല വേദന ഇല്ലാത്തത് നമുക്ക് വേണമെങ്കിൽ ഇന്നോ ഇന്നാണേലോ നാളേയോ ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷേ വേദനയുള്ളത് നമുക്ക് അത്ര പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ചിലപ്പോൾ വേദന വരുകയാണെങ്കില് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കുറച്ച് നാള് വേദന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ ചെയ്യുന്നതാരിക്കും അത് നല്ലത് വേദന മാറിയിട്ട് ആ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മറ്റേ മറ്റേ പല്ല് പെട്ടെന്ന് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം അല്ല രണ്ടും ഒന്നിച്ച് തന്നെ ചെയ്യാൻ ആണെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതാരിക്കും നല്ലത് ആ അങ്ങനെ ചെയ്തതായാലും കുഴപ്പമില്ല റൂട്ട് കനാല് നിങ്ങള് ഇപ്പോൾ വേദന മാറി കഴിഞ്ഞാലും പല്ല് രാവിലെയും രാത്രിയും ഡെയിലി പല്ല് തേക്കാൻ നോക്കുക രാത്രി എന്തായാലും നിർബന്ധായിട്ടും രാത്രി പല്ല് തേക്കുക പല്ല് തേക്കുക കാരണം അത് ചെയ്താലും അത് ഒരാഴ്ച നിങ്ങള് ശ്രദ്ധിച്ചിലെങ്കിൽ ഇനിയും കേടു പിന്നെയും നിങ്ങൾക്ക് വേദന ഉണ്ടാകും അത് ശ്രദ്ധിക്കണം നമ്മൾ രാത്രി പല്ല് തേക്കണം എപ്പഴും വായ ക്ലീൻ ആയിട്ട് വയ്ക്കണം ഇല്ലെങ്കിൽ പിന്നെയും ഇത് ചെയ്തത് കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവില്ല മര്യാദയ്ക്ക് നോക്കിയിലെങ്കിൽ പിന്നെയും വേദന വരും റൂട്ട് കനാൽ ചെയ്തത് കൊണ്ടു തന്നെ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആവും നോക്കണം പിന്നെ വേദന മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ വന്നോളു ഇത് കുടിച്ച് നോക്കൂ മരുന്ന് ശരി ഓക്കെ